കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന് എല്ലാംകൊണ്ടും എനിക്ക് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ നമുക്ക് കടൽ കടൽ മാർഗമുള്ള യാത്രയാണെങ്കിൽ നമുക്ക് കൊച്ചിയിൽ പോകാം അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ കയറാം അതുപോലെത്തന്നെ കോഴിക്കോടിൽ ഗതാഗത മാർഗ്ഗം എന്നുപറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ ഉണ്ട് വിമാനത്താവളം ഉണ്ട് ഓട്ടോ റിക്ഷയുണ്ട് ടാക്സി കാറുകൾ ഉണ്ട് കെ എസ് ർ ടി സി ഉണ്ട് പ്രൈവറ്റ് ബസ്സ് ഉണ്ട് പിന്നെ സ്വന്തമായിട്ടാണെങ്കിൽ സ്കൂട്ടിയും ബൈക്കോടിക്കുന്നവർക്കൊക്കെയുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും വണ്ടിയുള്ളവരാണ് വണ്ടി നല്ല രീതിയിൽ അവർക്ക് അവര് അവരുടെ ദൈനദിന ജീവിതത്തിൽ അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാറോ കാറിലും സ്ക്കൂട്ടിയിലും ബൈക്കിലും സൈക്കിളിലും പോകുന്ന ആൾക്കാരുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ സൈക്കിളിലും പോകുന്നവരുണ്ട് പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ട്രെയിനിനെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കൊച്ചി വരെ പോയിട്ട് വിമാനത്താവളത്തിൽ വിമാനത്താവളം നമുക്ക് കേരളത്തിൽ കൊച്ചിയിലും കണ്ണൂരുണ്ട് പിന്നെയുള്ളത് നമ്മുടെ കോഴിക്കോട് ആണ് അത്രയും ദൂരം പോയിട്ട് നമുക്ക് വേറെയുള്ള ജില്ലക്കാർക്കൊക്കെ കോഴിക്കോട് വന്നൊക്കെ ഇറങ്ങണം കയറണം അങ്ങനെയൊക്കെയാണ് കോഴിക്കോടിൽ തന്നെ ഒരു എയർപോർട്ട് ഉള്ളതുകൊണ്ട് സുഖകരമായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കയറി പോകാവുന്ന വലിയ ദൂരം ഒന്നും നമുക്ക് തോന്നില്ല പിന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ നമുക്ക് ടാക്സി വിളിക്കാം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ദൈനദിന ജീവിതത്തിൽ അത് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല വാഹനം തടസ്സം നമുക്ക് ഇഷ്ടം പോലെ വാഹനമുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ല നമുക്ക് ഏതു മാർഗ്ഗം ഏത് വാഹനം വേണമെന്ന് നമ്മൾ വ്യക്തിപരമായി ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ഏതു വാഹനത്തിൽ പോകണമെന്നുള്ളത് അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക എല്ലാം കൊണ്ടും നമുക്ക് മൊത്തത്തിൽ ഒരു ഉന്മേഷവും നല്ലൊരു മറ്റു ജില്ലയിയേക്കാളും എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയാണ് കൂടുതലും നല്ലത് എല്ലാംകൊണ്ടും ഫെസിലിറ്റിസ് ഒക്കെക്കൂടി എല്ലാ രീതിയിലും മുന്നോട്ട് വന്നിട്ടുണ്ട്